വയനാട് ജില്ല ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണങ്ങൾ വന്യജീവികൾ പരിസരം വിട്ട് അവരുടെ ആവാസ്ഥ വ്യവസ്ഥ വിട്ട് പുറത്തു ഇറങ്ങുകയും അവരുടെ ഭക്ഷണം തേടാൻവേണ്ടി അവിടെ ജീവിക്കാൻ പറ്റാത്ത ആവാസ്ഥ വ്യവസ്ഥ ആയതിൽ തന്നെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുതന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചൂടുകൂടുകയും അവരുടെ പ്രകൃതി വിഭവങ്ങൾ നശിച്ചുപോകുകയും ചെയ്യുന്നതിനാൽ തന്നെ അവർ തീറ്റ തേടി പുറത്ത് ഇറങ്ങുകയും മനുഷ്യരേ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതിനു ഒരു മാറ്റം വരാൻവേണ്ടി കാടുകളിൽ അവർക്ക് വേണ്ട ആവാസ്ഥ വ്യവസ്ഥയും ഭക്ഷണ സാധനങ്ങളും നട്ടു നഞ്ഞച്ച് ഇല്ലങ്കിൽ അവർക്കുള്ള അവസ്ഥ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി എടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തിക്കൾ ചെയ്യാത്തതിനാൽ തന്നെ പല പ്രശ്നങ്ങളും വയനാട്ടിൽ വന്യജീവികളെ കൊണ്ട് നേരിടുന്നുണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൃഷി നശിപ്പിക്കുന്നൊരു അവസ്ഥ അങ്ങനെ കർഷകർ വന്യജീവികളെ കൊണ്ട് വല്ലാതെ കഷ്ട്ടപ്പെടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് ഇതിനെല്ലാം മാറ്റം വരണമെങ്കിൽ ഫോറെസ്റ്റ് അതിനുള്ളിൽ തന്നെ അവർക്ക് വേണ്ട ആവാസ്ഥ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ്